സമൂഹത്തിന് പുറത്ത് ഞാൻ നടത്തിയിട്ടുള്ള യാത്ര ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല പല സ്ഥലങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ പ്രദേശത്തെ ആളുകൾ പരമാവധി സഹായിച്ചിട്ടുണ്ട് അറിയാൻ കഴിയാത്ത കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി തന്ന് സഹായിച്ചിട്ടുണ്ട് ഒരിക്കലും ഇങ്ങനെ ഇത്തരം ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ പിന്നെ നമ്മൾ പരസ്പരം സഹകരിച്ച് പോവുമ്പോൾ അവയിൽ നിന്നും തന്നെ മറ്റ് വിധത്തിലുള്ള അഭിപ്രായങ്ങളൊന്നും തന്നെ ഉണ്ടാകാറില്ല അതുപോലെ യാത്ര ചെയ്യുന്ന സമയത്ത്

ഭക്ഷണം അതുപോലെ റൂട്ട് തുടങ്ങിയവ എല്ലാം സെലക്ട് ചെയ്യുമ്പോൾ തെരഞ്ഞെടുക്കുമ്പോൾ

എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തന്നെ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് ഇത്തരം ഒരു ബുദ്ധിമുട്ടുകൾ ഇതുവെരെ ഉണ്ടായിട്ടില്ല